ഞങ്ങൾ പെരുന്നാളിന് മൂന്നാലൈറ്റം ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കും നെയ്ച്ചോറുണ്ടാക്കും അതേപോലെ തേങ്ങാച്ചോറും ചിക്കന് കറിയും നെയ്ച്ചോറുക്ക് ചിക്കന് കറിയുണ്ടാകും പിന്നെ ചിക്കന് വരട്ടിയത് ഉപ്പേരി അച്ചാർ പപ്പടം പിന്നെ പായസമുണ്ടാകും ബിരിയാണിക്ക് വെക്കേണ്ട സാധനങ്ങൾ പറഞ്ഞാൽ വല്യുള്ളി വേണം തക്കാളി വേണം പിന്നെ ഇഞ്ചി പച്ചമുളക് തൈര് കരിവേപ്പിന്റെ ഇല മല്ലിച്ചെപ്പ് അതൊക്കിങ്ങനെ വയറ്റിയാണ്ട് നമ്മൾ ബിരിയാണി വെക്കും അതേപോലെ നെയ്ച്ചോറ്റുക്ക് ചിക്കന് കറിയാണുണ്ടാക്കുക ചിക്കന് കറിയൊക്കെ നമ്മൾ സവാള തക്കാളി ഈ പറഞ്ഞതു പോലെ പച്ചമുളക് ഇഞ്ചിയെല്ലാം പിന്നെ മല്ലിച്ചെപ്പ് ഒക്കെയിട്ടിട്ടാണ് വയറ്റിയെല്ലാം ഒക്കെ പൊടികളോ മല്ലിപ്പൊടി മുളകുംപൊടി മഞ്ഞപ്പൊടിയും എല്ലാ പൊടികളും മസാലപ്പൊടിയൊക്കെ ചേര്ത്തിട്ട് നമ്മൾ ചിക്കന് കറിയുണ്ടാക്കും അതേപോലെ പായസം ഞാന് വെക്കൽ സേമിയയും ചവ്വരിയും ഒക്കെ ഇട്ടു കൊണ്ടാണ് പിന്നെ പാലും ഇട്ടിട്ടാണ് പിന്നെ പായസം ഉണ്ടാക്കൽ അതേപോലെ ഞാനോണം ആഘോഷിക്കാറുണ്ട് ഓണത്തിനു ഗംഭീരായ സദ്യ ഉണ്ടാക്കും സാമ്പാർ തോരൻ അവിയൽ ഇല് എരിശ്ശേരി പുളിശ്ശേരി അങ്ങനെ പുളിയിഞ്ചി ചമ്മന്തി അച്ചാർ പപ്പടം പായസം ഒക്കെ ഇതേപോലെ ഉണ്ടാക്കും സാമ്പാറാണെങ്കിലും നമ്മളെല്ലാ ആ കഷ്ണങ്ങളും ഇട്ടിട്ട് സാമ്പാറുണ്ടാക്കും അവിയലിനാണെങ്കില് മുരിങ്ങാക്കായ് ക്യാരറ്റ് ചേന വഴ കുമ്പളങ്ങ പടവലം അങ്ങനെ അതൊക്കെ പടറ്റിട്ടൊരവിയലുണ്ടാക്കും പയറ് ചെറുതായിട്ടരിഞ്ഞിട്ടു തോരനും വെക്കും അതേപോലെ ക്രിസ്മസ്സും ആഘോഷിക്കലുണ്ട് ക്രിസ്മസ്സിനു നമ്മൾ കേക്ക് മുറിക്കും അതേപോലെ പായസമുണ്ടാക്കും ഇതേ പോലെ നെയ്ച്ചോറു നെയ് ചിക്കന് കറി പിന്നെ ബിരിയാണി ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ എല്ലാ ഉത്സവത്തിനും ഞങ്ങളാഘോഷിക്കലുണ്ട്